തീർച്ചയായും ഞാൻ എൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ എപ്പോഴും അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നല്ല ഓരോ കേരളീയനും നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ എപ്പോഴും അഭിമാനം കൊള്ളുന്ന വ്യക്തികളായിരിക്കും നമ്മൾ കേരളമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജാതി മത വിദ്വേഷങ്ങളും വർണ വിവേചനങ്ങളും ഒന്നുമില്ലാതെ ഒത്തൊരുമിച്ച് എല്ലാവരും ഒരുപോലെ ഏത് ഒറ്റ മനുഷ്യരെ പോലെ ജീവിക്കുന്നത് ഒരു സംസ്ഥാനമാണ് നമ്മളുടെ കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളമെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ തന്നെ ഈ അടുത്ത് നടന്ന വയനാട് ദുരന്തം അവിടെ വലിയ നാശനഷ്ടം വൻ ദുരന്തമാണ് അവിടെ നടന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ആ ഒരു ജില്ലക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ അത്തരം വൻ ദുരന്തം അത് അനുഭവിച്ചപ്പോൾ ബാക്കി പതിമൂന്ന് ജില്ലകളും ഒറ്റക്കെട്ടായി ജാതിയോ മതമോ വർണ വിവേചനങ്ങളോ ഒന്നും കൂടാതെ തന്നെ തങ്ങളെ കൈയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മുടെ ആ ജില്ലയ്ക്ക് വേണ്ടി കൊടുക്കുവാനും അവരെ അവർക്ക് കരുത്തായി അവർക്ക് താങ്ങായി തണലായിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ ജില്ല കേരളത്തിലെ ആളുകൾ നിൽക്കുകയുണ്ടായി അപ്പം അത് കാണുമ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള ത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരാണ് അവിടെ കാണിക്കുന്നത് പണ്ടു മുതൽക്കേ ആയിക്കോട്ടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഒത്തൊരുമയോടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരു വിഷമഘട്ടം വരുമ്പോൾ ആ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവാം പക്ഷെ ഒരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ജാതിയോ മതമോ ഒന്നും കൂടാതെ തന്നെ അവരെ ചേർത്തു പിടിച്ചു അവർക്ക് താങ്ങായി തണലായി സപ്പോർട്ട് ആയി എപ്പോഴും നിൽക്കുന്നവരാണ് നമ്മൾ കേരളീയർ അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗായിട്ടാണ് നമുക്ക് അത് കിട്ടിയത് പണ്ട് മുതൽക്കേ തന്നെ നമുക്ക് കിട്ടിച്ചേർന്ന് ഇരിക്കുന്ന നമ്മുടെ സമ്പത്താണ് അത് അപ്പം അതിലും തീർച്ചയായും നമ്മള് ഓരോരുത്തരും അഭിമാനം കൊള്ളുക തന്നെ ചെയ്യും ചെയ്യുന്നുണ്ട് ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ ആഘോഷങ്ങൾ ആ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ ജാതിയോ മതമോ അവിടെ നോക്കുന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഓണാഘോഷം ഓണം ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമാണോ അല്ല അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവായിട്ടാണ് ആ ഓണത്തിനെ കരുതുന്നത് അതുപോലെ ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷങ്ങളെ എല്ലാം നമ്മൾ ആഘോഷങ്ങളും കല കലകളും എല്ലാം നമ്മൾക്ക് എല്ലാ ഇടത്തും നമ്മൾ ഒരു പോലെ മനുഷ്യർ എന്ന ഒരു പേര് മാത്രം മനുഷ്യർ എന്നൊരു വിഭാഗം മാത്രം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ മുന്നോട്ട് പോകുന്നത് ഒത്തൊരുമയോടെ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വാക്ക് തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം പക്ഷെ ഒരു പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഒരു ഇത് നടക്കുമ്പോൾ അവിടെ ഒത്തൊരുമ ഒരു ഐക്യം നമ്മളിലുണ്ട് അത് നമ്മളുടെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു സ്വത്താണ് അപ്പോൾ എല്ലാവരും നമ്മൾ എല്ലാവരും തന്നെ സാംസ്കാരിക പൈതൃകത്തിൽ എപ്പോഴും അഭിമാനിക്കുന്നവ ർ ആയിരിക്കണം നമ്മൾ കേരളീയർ